നമ്മുടെ പ്രദേശത്ത് സാധാരണ കളിക്കുന്നതിപ്പോൾ എല്ലാ ചെറിയ ചെറിയ റോട്ടില് പോലും കുട്ടികള് കളിക്കുന്നത് ഫുഡ്ബോളാണ് അതുപോലെ ഇപ്പോൾ ക്രിക്കറ്റ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറെ ആൾക്കാര് പഴയ രീതിയിലുള്ള കായികമായിട്ടുള്ള കളികള് ഗ്രാമീണ സ്ഥലങ്ങളില് മാത്രമല്ല പട്ടണങ്ങളിലോ അല്ലെങ്കിൽ ടൗൺ ഏരിയയിലും കുറവാണ് അതിലുപരി ജനങ്ങൾക്കിപ്പോൾ കളികളോട് അല്ല താല്പര്യം കളി കാണുന്നതിലാണ് കായിക ഇനങ്ങള് എന്നൊക്കെ പറയുമ്പോൾ അത് സ്കൂളിൽ പഠിപ്പിച്ച് ഇല്ലെങ്കിൽ സ്കൂളിന്ന് കിട്ടുന്ന കായിക പരിശീലനമാണ് മറ്റുള്ള ഉള്ളത് മറ്റു സംസ്ഥാനവും ഈ സംസ്ഥാനവും തമ്മില് വ്യത്യാസംന്ന് പറഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങള് പൊതുവേ കൊക്കൊ കബടി ഫുട്ബോൾ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഹോക്കി ഏ അങ്ങനെയുള്ള ഒരുപാട് കൂടുതൽ മെഡൽ ഒക്കെ കിട്ടാവുന്ന അല്ലെങ്കിൽ കൂടുതൽ പ്രസിദ്ധി ആർജിക്കാൻ പറ്റാവുന്ന വലിയ വലിയ കാശു മുടക്കിയിട്ടുള്ള കളികളാണ് മറ്റ് സംസ്ഥാനങ്ങള് കഴിവുള്ള സംസ്ഥാനങ്ങള് ഡൽഹി അല്ലെങ്കില് ബോംബെ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പൊൾ ഉള്ളത് ആസ്ഥാനത്ത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത്രയധികം പൈസ മുടക്കിയിട്ടുള്ള ഒരു കളികളൊക്കെ കുറവാണ് അല്ലെങ്കിൽ കളിക്കാൻ താല്പര്യല്ല അതുകാരണം അത് ഇവിടുത്തെ ആൾക്കാർക്ക് അതിനോട് പോഷിപ്പിച്ചെടുത്ത് നന്നാവാൻ ഉള്ള അവസ്ഥ അവസരം കുറവാണ്